അതെ ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗം വൈദ്യുതിയെ ആശ്രയിക്കുന്നുണ്ട് കാരണം നാമിന്നു ചെയ്യുന്ന പല കാര്യങ്ങളും വൈദ്യുതിയെ ആശ്രയിച്ചിട്ടുള്ളതാണ് പാചകം ചെയ്യാനാവട്ടെ ഫോൺ ചാർജ് ചെയ്യാനാവട്ടെ ടെലിവിഷൻ കാണാനാവട്ടെ ഒക്കെ നാം വൈദ്യുതിയുടെ സഹായം തേടുന്നു എന്തിന് പറയുന്നു നാം ഇന്ന് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ പോലും വൈദ്യതിയുടെ സഹായത്തോട് കൂടിയാണ് ഓട്ടിക്കുന്നത് വൈദ്യതി ഇല്ലാത്ത ഒരു ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ നാം മനുഷ്യർക്കുള്ളത് എന്നാൽ പണ്ടുള്ള ആൾക്കാർ ഒരുപാട് വൈദ്യതീനെ ആശ്രയിച്ചിരുന്നില്ല നാം ഇന്ന് ഉപയോഗിക്കുന്ന മിക്സി ഗ്രൈൻഡർ ഇതിനൊക്കെ പകരം അവർ അമ്മിക്കല്ല് ആട്ടുകല്ല് അതൊക്കെയാണ് യൂസ് ചെയ്തിരുന്നത് അതുകൊണ്ടുതന്നെ അവർക്ക് ഒരുപാടിത് അഫക്റ്റ് ചെയ്യില്ലായിരുന്നു എന്നാൽ ഇന്നുള്ള ആൾക്കാർ അങ്ങനെയല്ല ഇന്നുള്ള ആൾക്കാർക്ക് പാചകം ചെയ്യണമെങ്കിൽ കൂടി മിക്സി ഗ്രൈൻഡർ ഒക്കെ വേണ്ട ആവശ്യമുണ്ട് ഈ വൈദ്യതി മുടങ്ങുന്ന സമയത്ത് വീട്ടിൽ പല കാര്യങ്ങളും നിലച്ചു പോവുകയാണ് വൈദ്യുതി ഇല്ലാതിരിക്കുന്ന സമയത്ത് നാം ആഹാരങ്ങൾ പോലും പുറത്ത് നിന്ന് വാങ്ങിച്ച് കഴിക്കേണ്ട അവസ്ഥയിലോട്ട് എത്തിയിരിക്കുകയാണ് പകൽ സമയങ്ങളിൽ നാം അതീവ്രമായ ചൂടാണ് അനുഭവപ്പെടുന്നത് പിന്നെ രാത്രി സമയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള അസൗകര്യം പിന്നെ ഒരുപാട് പ്രായമായവരുണ്ടെങ്കിൽ അവർക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്നു ഈ എന്നാൽ വൈദ്യതി നഷ്ടപ്പെട്ടാൽ നാം അതിനെ പരിഹരിക്കാൻ ഒരുപാട് മാർഗ്ഗങ്ങൾ ഇന്നുള്ള ആൾക്കാർ തേടുന്നുണ്ട് വെളിച്ചമുപയോഗിക്കുന്ന മറ്റു വഴികളായിട്ട് നമുക്ക് സോളാർ പാനൽ ഉപയോഗിക്കാം ഇൻവെർട്ടർ യൂസ് ചെയ്യാം രാത്രി സമയങ്ങളിലാണെങ്കിൽ എമെർജൻസി ടോർച്ച് ഇതൊക്കെ നമുക്ക് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ മെഴുകുതിരി അത് പണ്ടുള്ള ആൾക്കാരും ഇന്നും നമ്മൾ മെഴുകുതിരിയായാലും ചിമ്മിനി വിളക്കായാലും നമ്മൾ യൂസ് ചെയ്യും എന്നാൽ ഇതൊക്കെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ നിലച്ചു പോകുന്നതാണ് ഇപ്പോൾ ടോർച്ച് ആയിക്കോട്ടെ എമർജൻസി ആയിക്കോട്ടെ എല്ലാം നമ്മൾ ചാർജ് ചെയ്യുമ്പോ ആ ഒരു ഒരു പീരീഡ് കഴിയുമ്പോഴത്തേക്കും അത് നിന്നുപോവും എന്നാൽ ഇന്നുള്ള ആൾക്കാർ വീട്ടിൽ ഇൻവെർട്ടർ യൂസ് ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഇൻവെർട്ടർ യൂസ് ചെയ്യുന്നുണ്ട് അവർക്കൊരു പതിനഞ്ചു മിനിറ്റ് പോലും എന്താണ് വൈദ്യുതി ഇല്ലാതെ പറ്റാത്ത ഒരു അവസ്ഥയാണ് അവർക്കുള്ളത് അതുകൊണ്ടുതന്നെ വൈദ്യതിയെന്ന് പറയുന്നത് നാം ഓരോരുത്തരുടെ ജീവിതത്തിലും ഒരുപാട് വലിയ പങ്കാണ് വഹിക്കുന്നത് എന്നാൽ ഈ ഇൻവെർട്ടറിന് പകരം ആൾക്കാർ ടോർച്ചും എമർജൻസി ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ട് കൂടുതലും ഇന്നുള്ള വീടുകളിൽ ഇൻവെർട്ടർ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ഉപജീവന മാർഗ്ഗം വൈദ്യതീനെ നല്ല രീതിയിലാണ് ആശ്രയിച്ചിരിക്കുന്നത്